ദേശിയ മത്സര പരീക്ഷകളെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നീറ്റ് അതേപോലെ തന്നെ ജെ ഇ ഇ അതേപോലെ തന്നെ ഗേറ്റ് എക്സാമ്സ് എന്നിവയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഞങ്ങളുടെ പ്രദേശത്തെ കുട്ടികൾ എന്നെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ കുറേ പരീക്ഷകളിൽ രജിസ്റ്റർ ചെയ്യുകയും അതേപോലെ തന്നെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു എൻജിനീയറിങ് സ്റ്റുഡന്റ് ആണ് അപ്പോൾ എനിക്ക് പ്ലസ് ടുന് ശേഷം ഇതേപോലെ തന്നെ ദേശീയ മത്സര പരീക്ഷകൾ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ പരിസരത്തെ കുറേ കുട്ടികൾ ഇങ്ങനത്തെ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പെയർ ചെയ്യുകയും അതേപോലെ അതിന് വേണ്ടിയിട്ട് പഠിച്ച് അങ്ങനത്തെ എക്സാമുകൾ രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കുന്ന സ്ഥാപനങ്ങളുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരവധി സ്ഥാപനങ്ങളുണ്ട് പക്ഷേ എൻ്റെ അറിവിലുള്ളത് വളരെ കുറച്ചാണ് ഈ ബൈജൂസ് അങ്ങനത്തെ ഒക്കെ സ്ഥാപനങ്ങൾ ഇങ്ങനത്തെ ദേശിയ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കുറേ കോച്ചിങ് ഒക്കെ തരുന്നുണ്ട് ഇപ്പം ഏത് ടൈപ്പ് ഓഫ് എക്സാം ആയിക്കോട്ടെ നീറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മെഡിക്കലിലേക്കാണ് പോകുന്നത് ജെ ഇ ഇ എന്ന് പറയുമ്പോൾ ഈ എൻജിനിയറിങ് സൈഡ് ആണ് വരുന്നത് ആ അപ്പം ഇങ്ങനത്തെ എക്സാമുകൾക്കൊക്കെ പലവിധ കോച്ചിങ് സെൻറ്ററുകൾ അവർക്ക് സ്റുഡൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് അത് മാത്രമല്ല എങ്ങനെയാണ് പരീക്ഷകൾ എഴുതുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് തന്നെ അവർ രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത് അപ്പം അവർ രജിസ്ട്രേഷന് വേണ്ടിയിട്ടും എന്താണ് പറയുക ഓരോ കഫെകളിലൊക്കെ പോയിട്ട് അവർക്ക് ഒരു തുച്ഛമായ തുച്ഛം എന്ന് പറയാനായിട്ട് പറ്റില്ല ഒരു എമൗണ്ട് കൊടുത്തിട്ട് അവരത് അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെയും കൊടുത്തിട്ട് അതിന് ശേഷം അവർ തീരുമാനിക്കുകയാണ് സ്വന്തമായിട്ട് പഠിക്കണോ അതോ ഒരു കോച്ചിങ്ങിൻ്റെ സഹായത്തോടെ പഠിക്കണോ എന്ന് അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് അത്രയും കോൺഫിഡൻസ് ഉള്ള ആത്മവിസ് ആത്മവിശ്വാസമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാം അല്ലാതെ മറ്റ് ഒറ്റക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് അതിന് കോച്ചിങ് എടുക്കാം അപ്പം കോച്ചിങിന് വേണ്ടിയിട്ടങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ടെന്നാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പം അതിന് അവിടെ രജിസ്റ്റർ ചെയ്താൽ അവിടെയും നമുക്ക് കാശ് കൊടുക്കാതെ കാശ് കൊടുക്കേണ്ടി വരും ആ അവിടെ കാശ് കൊടുത്തിട്ടവർ നല്ല രീതിയിലുള്ള കോച്ചിങ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രമല്ല കുറേ മെറ്റീരിയൽസും അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ കുറേ ടിപ്സും ട്രിക്സ് ഒക്കെയും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ സ്വന്തം പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് കുറേ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇഷ്ട്ടം പോലെ ഇങ്ങനത്തെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പം അവർക്ക് അങ്ങനത്തേതൊക്കെ നോക്കിയിരുന്ന് പഠിക്കാം അതേപോലെ തന്നെ സിലബസ് ഒക്കെ ആദ്യം കണ്ടുപിടിച്ച് അതിനനുസരിച്ച് അവർക്കതിന് പ്രിപ്പെയർ ചെയ്യാനായിട്ടും പറ്റും മാത്രമല്ല ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് നമുക്ക് അവൈലബിൾ ആണ് അപ്പം അങ്ങനത്തെ മോക്ക് ടെസ്റ്റുകൾ അവർക്ക് അറ്റന്റ് ചെയ്യാം എന്നിട്ട് അപ്പം നമ അവർക്കൊരു പ്രാക്ടീസ് സെഷൻ പോലെയാണ് മാത്രമല്ല അവർക്ക് എന്തോരം ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ കുറേ ഇൻസ്റ്റിട്യൂഷൻസ് ഇങ്ങനെ കുട്ടികളെ സഹായിക്കാൻ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒറ്റക്ക് പഠിക്കാനായിട്ട് മറ്റേ കോച്ചിങ് സെൻറ്ററിലൊക്കെയും കാശ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒറ്റക്ക് പഠിക്കാനുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ വിധ സംഭവങ്ങളും ഓൺലൈനിൽ അവൈലബിൾ ആണെന്നാണ് എന്റെയൊരറിവ്